ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ കൂടുതലും കൊടുത്തിട്ടുള്ളത് ഗ്രീറ്റിങ്ങ് കാർഡുകളാണ് ഇപ്പം നമ്മുടെ ക്രിസ്മസ് ടൈമിൽ നമ്മൾ കൊടുക്കത്തില്ലെ ഗിഫ്റ്റ് ആയിട്ട് ആ കാർഡ് ഞാൻ കുറേ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് അത് ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്ന് വെച്ചാൽ നമ്മുടേതായിട്ടുള്ള ഒരു രീതിയിൽ നമുക്കുണ്ടാക്കാൻ പറ്റും ഇപ്പം നമ്മളിപ്പം കടയിൽനിന്ന് വാങ്ങിക്കുന്ന സമയത്ത് ഒരു കാർഡ് വെച്ചാൽ നമുക്കിത് എടുത്ത് നോക്കുമ്പോൾ തോന്നും അയ്യോ ഇത് ഇവിടെ വന്നിരുന്നെങ്കിൽ ഈ ലവ്വ് ഇവിടെ വന്നിരുന്നെങ്കിൽ ഈ ലവ്വിന് വേറെ കളർ കൊടുത്തിരുന്നെങ്കിൽ സൂപ്പർ ആയേനെ എന്ന് തോന്നും അപ്പോൾ അതിന്റെ നല്ലത് നമ്മൾ സ്വന്തമായിട്ടൊന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മളെ ഇഷ്ടത്തിന് നമ്മളെ രീതിക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അതാണ് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയാലുള്ള പ്രത്യേകതയെന്ന് പറഞ്ഞാൽ എനിക്കിങ്ങോട്ടും ലഭിച്ചിട്ടുണ്ട് ഞാൻ അങ്ങോട്ടും കൊടുത്തിട്ടുണ്ട് എനിക്ക് ക്രിസ്മസ് കാർഡ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങോട്ട് തരുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാനുണ്ടാക്കുന്ന സമയത്തിപ്പം ഞാനുണ്ടാക്കുന്ന ഗ്രീറ്റിങ് കാർഡിൽ തന്നെ ഉള്ള ലവ്വിന്റെ ഷെയ്പ്പുകൾ അല്ലെങ്കിൽ ഹാർട്ടിന്റെ ഇത് മറ്റേ പല പല ഹാർട്ടിൻ്റെ കളറോക്കെയോ ഹാർട്ടിൻ്റെ പാട്ട് പിച്ചർ ഒക്കെയോ അല്ലെങ്കിൽ റ്റെഡി ബിയറിൻ്റെ ക്രിസ്മസ് പാപ്പയുടെ പിച്ചർ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് ഞാനുണ്ടാക്കുന്ന സമയത്ത് അതിനകത്തൊക്കെ വെച്ച് പിടിപ്പിച്ച് കൊടുക്കാറൊക്കെയുണ്ട് പിന്നെ സ്പ്രിങ്ങ് ഒക്കെ ഉപയോഗിച്ച് പിന്നെ ലൈറ്റ് ഒക്കെ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ എനിക്ക് ഇങ്ങോട്ടും കിട്ടിയിട്ടൊക്കെ ഉണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഞാമുണ്ടാക്കുന്ന സമയത്ത് കൂടുതലും എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ സോപ്പിൻ്റെ കവറിലുള്ള റോസാപ്പൂവിൻ്റെ പടമൊക്കെ വെട്ടി എടുത്ത് കൊടുത്ത് ഒട്ടിച്ച് കൊടിത്തിട്ടൊക്കെ ഉണ്ട് അതൊക്കെ എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗ്രീറ്റിങ് കാർഡ് പിന്നെ ഞാൻ കൊടുത്തിട്ടുള്ളതും അതു തന്നെയാണ് പിന്നെ എന്താണ് പറയുന്നത് ഇത് ഈ ഗ്രീറ്റിങ്ങിന്റെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇപ്പം നമുക്കാവശ്യമുള്ള സാധനങ്ങൾ ഞാനുണ്ടാക്കുന്ന എൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത് ഞാനുണ്ടാക്കുന്ന സമയത്താണെങ്കിൽ ഞാൻ അതിനുള്ള ആവശ്യങ്ങളെല്ലാം കടയിൽനിന്ന് വാങ്ങിക്കത്തില്ല പകരം ആ പൈസ എടുത്തിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് ഗ്രീറ്റിങ് കാർഡ് വാങ്ങിക്കാനുള്ള പൈസ വാങ്ങിച്ചിട്ട് ഞാൻ കടയിൽ പോയിട്ടുള്ള അതിനായിട്ടുള്ള ബീഡ്സ്സും സ്റ്റിക്കേഴ്സും പിന്നെ പല പല കളർ പേപ്പേഴ്സ് ഒക്കെ കൊണ്ട് വന്നിട്ട് യൂറ്റൂബിൽ നിന്നൊക്കെ എടുത്ത് ഓരോ മോഡൽ ഒക്കെ നോക്കി പല പല മോഡലിൽ നിന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് ഒരു രീതിയ്ക്ക് എൻ്റെതായിട്ടൊള്ള ക്രീറ്റിവിറ്റീസ് ആണ് ഞാൻ ചെയ്യുന്നത് എനിക്ക് ഗ്രീറ്റിംഗ് കാർഡിൽ ഭയങ്കര ഇൻട്രെസ്റ്റുമാണ് ഉണ്ടാക്കാനൊക്കെ പിന്നെ ഞാൻ അത് കൊടുക്കുന്നത് കൂട്ടുകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമൊക്കെയാണ് എനിക്ക് കൈ കൊണ്ട് നിർമ്മിക്കുന്ന കലയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതെന്തെന്ന് വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾക്ക് നമ്മുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാൻ പറ്റും ഇപ്പം നമ്മളൊരു കടയിൽനിന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു കടയിൽനിന്ന് വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് തോന്നും അയ്യോ ഇത് കൊള്ളത്തില്ല ഇതത്ര പോര മുത്തഴ ചിലപ്പോൾ ഉദാഹരണം പറ ഇപ്പം കടയിൽനിന്ന് നമ്മളിഷ്ടപ്പെട്ട് വാങ്ങിക്കുന്ന സാധനമായിരിക്കും കൊണ്ട് വന്ന് നോക്കുമ്പോൾ മുത്തൊക്കെ ഇളകി ഇളകിയിരിക്കും അല്ലെങ്കിൽ ചില താറാവിൻ്റെ കൊമ്പ് താറാവൊക്കെ ഉണ്ട് അതിൻ്റെ കൊമ്പൊക്കെ ഒടിഞ്ഞിരിക്കും ചില ഇതിന് തൂവലൊന്നും കാണത്തില്ല ഭംഗി ഒന്നും കാണത്തില്ല വെരുതെ കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന സാധനമാണ് പക്ഷേ അത് ആ ഒരു സാധനം കൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടാക്കിയാൽ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെതായ രീതിക്കല്ലേ ഉണ്ടാക്കത്തുള്ളൂ ഒരു കുഴപ്പം വരാതെ നമ്മളുണ്ടാക്കും അതാണ് നമ്മളും കടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അപ്പം എനിക്കിഷ്ടം കൂടുതലും നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത് തന്നെയാണ് കാരണം വെച്ചാൽ നമ്മളായിട്ടുള്ള ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാൻ പറ്റും അതുകൊണ്ട് പിന്നെ മോഡലും ഡിസൈനും ഒക്കെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും നമുക്കിഷ്ടപ്പെട്ട കളർ അതിന് കൊടുക്കാൻ പറ്റും നമുക്കിഷ്ടപ്പെട്ട മുത്തുകൾ അതിൽ പിടിപ്പിക്കാൻ പറ്റും ഏത് ഈ പിച്ചർ വയ്ക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം നമ്മളെ ആരും ചോദ്യം ചെയ്യാനൊന്നും വരത്തില്ല അതാണ് നമ്മളൊണ്ടാ പക്ഷേ കടയിൽനിന്നൊക്കെ ആണെങ്കിൽ നമുക്കങ്ങനെ പറയാൻ പറ്റുവോ അവരവരെ പൈസക്ക് മേടിച്ച് വയ്ക്കുന്ന സാധനം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുവാണ് അവമ്മക്ക് ഇതായിരുന്നെങ്കിൽ അവർ തന്നെ പറയില്ലേ ആ എങ്കിൽ ഇത്ര ഒക്കെ ആണെങ്കിൽ മോൾ പോയി ഉണ്ടാക്കി കൊടുത്തോ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരിതല്ലേ അപ്പോൾ അതിൻ്റെലും നല്ലത് അത് തന്നെ ഞാൻ ഇടയ്ക്കൊക്കെ ഞാനെന്ന് വെച്ചാൽ ഇപ്പം കടയിൽനിന്ന് ഇപ്പം എന്തെങ്കിലും നല്ല നല്ല സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് വാങ്ങിക്കും വാങ്ങിച്ചിട്ട് ഞാനെൻ്റെതായിട്ടുള്ള ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ നിന്ന് എടുത്തിട്ട് ആ ഒരു ഇപ്പം ടെഡീബിയർ ആണെങ്കിൽ ടെഡീബിയർ അല്ലെങ്കിൽ ഹാർട്ട് ആണെങ്കിൽ ഹാർട്ടിൻ്റെ ഷെയ്പ്പ് മറ്റേ ലൗവ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ മിനുക്കങ്ങൾ പിന്നെ സ്റ്റാർസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതിൽ നിന്ന് കട്ട് ചെയ്തും അതിൽ നിന്നൊക്കെ എടുത്ത് ഞാനുണ്ടാക്കുന്ന സമയത്ത് ഇതിലോട്ടെടുത്ത് ഫിറ്റ് ചെയ്തുവെച്ചൊക്കെയാണ് ഞാൻ കൊടുക്കാറ് അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ അതേക്കാ പൈസ കൊടുത്ത് വാങ്ങിച്ചതിനെക്കാൾ കുറച്ചുകൂടെ ഭംഗി ഞാനൊണ്ടാക്കുന്നതിന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം അതാണ് സ്വന്തമായിട്ടുണ്ടാക്കുന്നൊരു പ്രത്യേകത പിന്നെ പിന്നെന്താണ് എനിക്കും ഇങ്ങോട്ടൊക്കെ ലഭിച്ചിട്ടുണ്ട് അപ്പം എനിക്ക് കിട്ടിയിട്ടുള്ള കൂടുതലും എനിക്ക് തോന്നുന്നത് അവർ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന സാധനമാണ് കൂടുതലും അവരുണ്ടാക്കി തന്ന സാധനമല്ല കിട്ടിയിട്ടുള്ളതെല്ലാം ഇങ്ങോട്ട് ക്യാഷ് കൊടുത്ത് വാങ്ങിച്ച പൈസ കൊടുത്ത് വാങ്ങിച്ചിരുന്ന സാധനമാണ് പക്ഷേ എനിക്കങ്ങോട്ടു കൊടുക്കാൻ ഇഷ്ടം ഞാൻ സ്വന്തമായിട്ട് അപ്പോൾ അവർ തന്നെ ഇങ്ങോട്ട് ചോദിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഞാൻ പറയും ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെന്ന് അപ്പം പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ് പിന്നെ അമ്മയ്ക്കും പിന്നെ ഇപ്പം എന്നെ സഹായിക്കാറുമുണ്ട് അമ്മ സഹായിക്കും അനിയത്തി സഹായിക്കും ഇതൊക്കെ ഉണ്ടാക്കാനൊക്കെ സഹായിക്കും അപ്പം ആവുമ്പോൾ കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് കൂടും ഉണ്ടാക്കാനുള്ള താൽപര്യം കൂടും പിന്നെ ഈ ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് വീട്ടിലുണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പ അതുകൊണ്ടു തന്നെ കാർഡ് ഉണ്ടാക്കാൻ ബോർ അടി ആയിട്ട് തോന്നിയിട്ടില്ല ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് താൽപര്യം കൂടുതലാണ് അതൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര സന്തോഷമാണ് അപ്പം നമ്മൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന ഒരു ഇത് കൊള്ളാം എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അല്ലേ പിന്നെ കടയിൽനിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാട്ടി നല്ലത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊടുത്തു നോക്കിയേ എന്ത് സന്തോഷമാണെന്നറിയുമോ അപ്പം നമുക്ക് അതൊരു പ്രചോദനമായിട്ടല്ലേ നമുക്ക് തോന്നൂ ഒരു പ്രചോദനം തന്നെയാണ് അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും അതിനായിട്ട് ബെറ്റർ ആയിട്ടുള്ള നല്ലതായിട്ടുള്ള ഉണ്ടാക്കാനേ നമുക്ക് തോന്നിയിട്ടുള്ളൂ എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് പിന്നെ ഞാൻ ഗ്രീറ്റിങ് കാർഡ് പിന്നെ പാവക്കുട്ടികളെ ഒക്കെ ഉണ്ടാക്കാറുണ്ട് പിന്നേ കുപ്പികൾ ബോട്ടിൽ ഒക്കെ എടുത്തിട്ട് ബോട്ടിൽ ഒക്കെ കളർ ഒക്കെ അടിച്ചിട്ട് ബോട്ടിൽ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാറുണ്ട് പിന്നെ കൂടുതലും കുറച്ച് ഈസി ആയിട്ട് തോന്നുന്നത് നമ്മുടെ ഈ ഇതാണ് ഗ്രീറ്റിങ് കാർഡ് എല്ലാം അപ്പം അതിൽ വലുതായിട്ടില്ല ഒരു പേപ്പർ കട്ട് ചെയ്ത് ഒരു മോഡൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ജോയിൻ ചെയ്ത് അത് കുറച്ച് സിമ്പിൾ എളുപ്പമാണ് ഉണ്ടാക്കാനും എളുപ്പമാണ് അധികം സാധനങ്ങളും ആവശ്യമില്ല എന്നാൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് അതാണിതിൻ്റെ പ്രത്യേകത അതുകൊണ്ട് ഗ്രീറ്റിങ് കാർഡ് ഒക്കെ ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കൊടുത്തിട്ടുമുണ്ട് എനിക്ക് കിട്ടിയിട്ടുമുണ്ട് ഇങ്ങോട്ട് പിന്നെ ഇത് നിർമ്മിക്കാൻ എന്ന് വെച്ചാൽ ഇഷ്ടമാണ് എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കൈ കൊണ്ട് ഉണ്ടാക്കിയത് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ അതുപോലെ തന്നെയാണ് ഉണ്ടാക്കാൻ ഈസി ആണ് നമുക്ക് നമ്മളെ ക്രിയേറ്റിവിറ്റി നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് നമുക്കത് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്കതിൽ കൊണ്ടുവരാൻ പറ്റും പിന്നെ മറ്റു നമ്മളുണ്ടാക്കിയ സാധനം മറ്റുള്ളവർക്ക് കൊടുത്ത് കഴിയുമ്പോൾ കിട്ടുന്ന അവരിങ്ങോട്ട് കൊള്ളാം എന്ന് പറയുമ്പോൾ ഉള്ളൊരു സന്തോഷം അതൊക്കെ നല്ലതായത് നല്ലൊരനുഭവം ആയത് കൊണ്ട് എനിക്കിഷ്ടം ഇത് തന്നെയാണ് ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളതും